അതെ എന്താണ് വേണ്ടത് ഏത് ഫോണാ ഓക്കെ ആ പറയാം റെഡ്മി ടെണ്ട് ഫോണിൽ വരുന്ന സ്റ്റോറേജ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയായിരിക്കും സ്റ്റോറേജ് പിന്നെ റാമ് വരുന്നത് സിക്സ് ജി ബിയായിരിക്കും പിന്നെ സിക്സ് തൗസൻഡ് എം എ എച്ചുണ്ട് പിന്നെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഫൈവ് എം പിയാണ് ബാക്ക് ഫിഫ് അതെ അതെ ബാക്ക് ക്യാമറ വരുന്നത് ഫിഫ്റ്റി എം പി പ്ലസ് ടു എം പിയാണ് പിന്നതിൽ ഡ്യുവൽ സിമ്മുണ്ട് ഫോർ ജി വോൾട്ടായിരിക്കും പിന്നെ അതിൻറ്റൊപ്പം അതിൻറ്റൊപ്പം കിട്ടുന്നത് നമുക്ക് ഹാൻഡ്സെറ്റ് കിട്ടും അഡാപ്റ്ററ് കിട്ടും യു എസ് ടൈപ്പ് കിട്ടും സി കേബിള് കിട്ടും പിന്നെ അതിൻറ്റൊപ്പം തന്നെ വാറണ്ടി കാർഡുണ്ട് വൺ ഇയറാണ് വാറണ്ടി ഡിസ്പ്ലേ എച്ച് ഡിയായിരിക്കും പിന്നെ ഇതിൻ്റെ എമൗണ്ടുന്ന് പറയുന്നത് സെവെൻറ്റി തൗസന്റാണ് ആ ഇ എം ഐ ഉണ്ട് ഡൗൺ പേയ്മെൻറ്റ് ആഴ്ച ആഴ്ചേലാണടക്കേണ്ടത് ആദ്യമായിട്ടാണോ ഇ എം ഐ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് ഫീന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആധാർ കാർഡ് വേണം ബാങ്ക് പാസ്ബുക്ക് വേണം പിന്നൊരു ഫോട്ടോ വേണം അധികം സമയമൊന്നും എടുക്കില്ല ആ ഓക്കെ താങ്ക് യൂ